എൻ്റെ പ്രദേശത്ത് ഒരുപാട് ഉത്സവങ്ങൾ ആഘോഷിക്കാറുണ്ട് ഒന്നാമതായി വേല പിന്നെ പൊങ്കൽ അയ്യപ്പൻ വിളക്ക് തുടങ്ങിയവയൊക്കെയാണ് ഓരോ ഉത്സവങ്ങൾക്കും അതിന്റേതായ ചരിത്രമുണ്ട് ഓരോ ആചാരത്തിൻ്റെ ഓരോ ആചാരങ്ങൾ അനുസരിച്ചാണ് ഇവയെല്ലാം നടത്തുന്നത് പൊങ്കാല ആണെങ്കിൽ ആ പൊങ്കലിനാണെങ്കിൽ പൊങ്കാലയാണ് സ്ത്രീകൾ ഇടാറുള്ളത് അതുപോലെ അയ്യപ്പൻ വിളക്ക് അയ്യപ്പനുമായി ബന്ധപ്പെട്ട ഒരു ഉത്സവമാണ് ജാതിമതഭേതമന്യേ എല്ലാവരും പങ്കെടുക്കുന്ന ഉത്സവങ്ങളാണ് ഈ ഉത്സവങ്ങളെല്ലാം ഓരോ നാട്ടിൻ പ്രദേശങ്ങളിലും ഓരോ ഓരോ രീതിയിലാണ് ആചരിക്കുക ആഘോഷിക്കാറുള്ളത് അതെല്ലാം ആ നാടിൻ്റെ നാടിൻ്റെ ഭംഗി അല്ലെങ്കിൽ നാടിൻ്റെ പ്രൗഢി കൂടുതലാക്കുന്നു